വയനാട് ജില്ലയിലെ തൊഴിലല്ലെങ്കിൽ ഉപജീവനമാർഗം എന്താണെന്ന് ചോദിച്ചാൽ കൃഷി തന്നെയാണ് ഒരുപാട് പേർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേര് സ്വയംതൊഴിലിനെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോള് സ്വന്തമായിട്ടൊരു കട തുടങ്ങി എന്താണെന്നുവെച്ചാല് മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ മലഞ്ചരക്ക് കടയോ അല്ലെങ്കിൽ തുണി തുണി വസ്ത്രങ്ങൾ വില്പന ചെയ്യുന്ന കടയോ അല്ലെങ്കിൽ ജ്വല്ലറി അതുപോലെ സ്വയംതൊഴിൽ നോക്കി ജീവിക്കുന്നവരുമുണ്ട് അതുപോലെ വ്യവസായമുണ്ട് ഈ മലഞ്ചരക്ക് കടയെന്ന് പറയുമ്പോള് ഈ എന്താണ് പറയുക കുരുമുളക് കാപ്പി ഏലം അതുപോലെയുള്ള അതുപോലെയുള്ള മലഞ്ചരക്ക് ഐറ്റംസ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നൊരുപാട് ആൾക്കാര് ഇന്നുണ്ട് എന്നാൽ പോലും ഇപ്പോള് ഒരുപാട് പേർ തൊഴിലില്ലാതെയും നടക്കുന്നുണ്ട് തൊഴിലില്ലാതെ ഗൾഫിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലേക്ക് പോവുക അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവര്ക്കും ഗവൺമെൻറ്റ് ജോലി തന്നെയാണ് ആവശ്യം എന്തെന്ന് ചോദിച്ചാല് ഗവൺമെൻറ്റ് ജോലിയെന്ന് പറയുന്നത് കറക്റ്റ് ശമ്പളം കിട്ടും അതുപോലെതന്നെ നമുക്ക് കറക്റ്റ് ലീവുണ്ടാകും പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയെ ജോലിയുള്ളൂ പിന്നെ അതുപോലെ ഇപ്പോള് നമുക്ക് റിട്ടെയര്ഡ് ആയാലും പെൻഷൻ കിട്ടും അലവൻസ് കിട്ടും ഇങ്ങനെയൊരുപാട് ഒരുപാടൊരുപാട് നേട്ടങ്ങള് ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നു അതുകൊണ്ടുതന്നെ ഒരുപാട് ആൾക്കാര് പി എസ് സി പോലെയുള്ള പരീക്ഷകളെഴുതാനാണ് ഇപ്പോള് എല്ലാവരും പോകുന്നത് ഗവൺമെൻറ്റ് ജോലിക്കാണ് എല്ലാവരും ഇപ്പം പുറകെ നടക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് നമുക്ക് വലിയ ജോലിയുണ്ടാവില്ല നല്ല ശമ്പളവും നമുക്കൊരു നേട്ടം തന്നെയാണ് എന്നാൽ എന്നാൽ സ്വയംതൊഴിൽ ചെയ്യുന്നതില് കൃഷിയൊക്കെ ആണെങ്കില് ഇടയ്ക്കൊരു നാശനഷ്ടവും നമുക്കൊരു റിസ്ക് ഏറ്റെടുക്കുന്നൊരു പ്രവർത്തിയാണ് ഇതൊക്കെ കൃഷി സ്വയംതൊഴിൽ ഇവയൊക്കെ എന്നാല് ഗവൺമെൻറ്റ് ജോലിയെന്ന് പറയുന്നത് നമുക്ക് റിസ്ക്കില്ല നമുക്ക് ചെറിയ ചെറിയൊരളവില് ജോലി ചെയ്യുകയും നമ്മുടെ കയ്യില് പൈസ കിട്ടുകയും ചെയ്യും തൊഴിലില്ലായ്മ ഇപ്പോള് വ്യാപകമായുണ്ട് ചെറിയ ഇപ്പോള് പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് എം ബി എ ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് വരെ ഇപ്പോള് ജോലിയില്ലാതെയുള്ള അവസ്ഥ വന്നിട്ടിണ്ട് എന്തെന്ന് ചോദിച്ചാല് ഇപ്പോള് ഒരുപാട് തൊഴിലവസരങ്ങള് ഇപ്പോള് എം ബി എ എൻജിനീയറിങ് ഒക്കെ കൂടുതല് ആൾക്കാരിപ്പം എൻജിനീയറിങ്ങിനാണ് പോയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്കപ്പോള് കൂടുതലാളും പോകുന്നതുകൊണ്ടുതന്നെ നമുക്ക് അവിടെ തന്നെ ഒരു തൊഴിലില്ലായ്മയാണ് കാണപ്പെടുന്നത് ഒരുപാടുപേര് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് എം ബി എ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവര്ക്കൊന്നും തൊഴിലില്ലാതെ മറ്റുള്ള കടകളില് പോയി മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥയാണിപ്പോള് വരുന്നത്